ഇന്ന് നമ്മുടെ സമൂഹത്തില് യുവാക്കളും യുവതികളും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ എല്ലാവരും പഠിച്ചവരാണ് ഇന്ന് ഒര് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരെ കംപ്ലീറ്റ് ചെയ്യാത്തവരാരും ഇന്നില്ല എല്ലാവരും പഠനം അവരുടെ പഠനം തുടർപഠനങ്ങളും പഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പം ആ പഠനത്തിന് അനുസരിച്ചിട്ടുള്ള ജോലികൾ കൊടുക്കാൻ നമുക്ക് എന്തെയ്യുന്നില്ല സാധിക്കുന്നില്ല എല്ലാവരും പഠിച്ച് വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മള് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരങ്ങളില്ലായെന്ന് കണ്ട് മറ്റ് പല രാജ്യങ്ങളിലേക്കോ മറ്റ് പല നാടുകളിലേക്കോ ചേക്കേറി കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്നത് അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം പണം വേണം പണം വേണമെങ്കിൽ സമ്പാദിക്കണം സമ്പാദിക്കണമെങ്കിൽ തൊഴില് വേണം തൊഴില് വേണമെങ്കിൽ നമ്മുടെ നാട്ടില് തൊഴിലില്ല എന്ന് കണ്ടാൽ അവര് മറ്റ് രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ അവര് സ്വന്തം കുടുംബത്തെ വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി അവർക്ക് ആവശ്യമായ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏറ്റവും കൂടുതല് മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ജൈവ വൈവിധ്യം അല്ലെങ്കി കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട പഠനങ്ങള് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി കുക്കിങ് അങ്ങനെ പല മേഖലകള് പുതുതായി ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മേഖലകളിലേക്ക് കുറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് അഭിപ്രായമാണ് എനിക്കുള്ളത് തൊഴിൽ നമ്മൾ കൃഷി രീതിയിൽ തന്നെ വ്യത്യസ്ഥ തരത്തിലുള്ള കൃഷികളും അതിനനുസരിച്ചിട്ടുള്ള കൃഷി രീതികളുമുണ്ട് അപ്പം ആ തരത്തിലുള്ള കൃഷി രീതികളും ഏതൊക്കെ തരത്തിലുള്ള പ്ലാനിങ്ങുകളും അതൊക്കെ നമുക്കെന്തെയ്യണം ഇന്നത്തെ സമൂഹത്തിലുള്ളവരെ പഠിപ്പിച്ച് കൊടുത്താൽ അവർക്ക് ഒന്നുങ്കിൽ സ്വന്തമായി ഒരു സംരംഭം തൊടങ്ങുവാനോ അല്ലെങ്കിൽ അവർക്ക് ആ മേഖലയിലേക്കുള്ള തൊഴിലിലേക്ക് പോകുവാനോ അവർക്ക് സാധിക്കും പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പല ഇന്ന് ഏകദേശം ഒന്ന് രണ്ട് ജില്ലകളിൽ മാത്രമേ ടെക്സ്റ്റൈല്മായി ബന്ധപ്പെട്ട് കൂടുതൽ അതിനായുള്ള വ്യവസായം നടത്തുന്നൊളളൂ എല്ലാ ജില്ലകളിലും ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട അപ്പാരൽസ് അപ്പാരൽ പാർക്ക് സ്റ്റിച്ചിങ് യൂണിറ്റുകള് അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാല് കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ യുവാക്കളിലേക്ക് എത്തിച്ചേരും ഇന്ന് പിന്നെ ഇന്ന് എല്ലാവരും എഞ്ചിനീയറിങ് ആ ഒരു മേഖല ഐടി മേഖലയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ജില്ലകളിൽ എന്ത് ചെയ്യണം ഓരോരോ ഐടി അപ്പാരൽ പാർക്കുകള് തുടങ്ങിയാൽ ആ വഴിയും കൂടുതൽ എന്ത് ചെയ്യാം തൊഴിലവസരങ്ങൾ നേടാം ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിഎസ്സി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി അത് ഒരു നൂറിൽ ഒരു പത്ത് കുട്ടികൾക്ക് മാത്രമെ എന്തെയ്യൊള്ളൂ അതിനുള്ള അവസരങ്ങളും അതിൽ നിന്ന് ആ ജോലി ചെയ്യാനുള്ള സീറ്റുമുന്ദാവുകയുള്ളു അപ്പം ആ പത്ത് ശതമാനം ആൾക്ക് മാത്രമേ ആ ജോലി ചെയ്യാനൊള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പേർക്കും എന്തില്ല ആ ജോലി കിട്ടില്ല അതിനുള്ള അവസരം അവർക്കില്ല അപ്പ ആ തൊണ്ണൂറ് ശതമാനം പേർക്കും എന്തെയ്യെണം നമ്മൾ മറ്റൊരു തൊഴിൽ കണ്ടെത്തണം അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സംരഭകം അല്ലെങ്കിൽ പുതുതായി ഒരു സംരഭകം തുടങ്ങണം അപ്പം നമ്മുടെ കുട്ടികളിൽ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവാക്കളിൽ അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മളെന്തെയ്യണം അത് കണ്ടെത്തി അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്കിൽസ് സ്കിൽ പ്രോഗ്രാമുകള് കണ്ടക്റ്റ് ചെയ്ത് അവരെ ഉള്ളിലെ ആ സ്കില്ലുകൾ എന്തെയ്യണം ഡെവലപ് ചെയ്യണം ഡെവലപ് ചെയ്തിട്ട് നമുക്ക് അവനെ പ്രാപ്തനാക്കണം സ്വന്തമായി നമ്മൾക്കൊരു സംരഭം തുടങ്ങാം അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് അതിൽ നിങ്ങളെന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ സംരഭം തുടങ്ങി നമുക്കതിൽ നിന്ന് നമുക്കെന്താ ആവശ്യമായി പണം നമുക്ക് സമ്പാദിക്കാം എന്ന് എന്ത് ചെയ്യണം അവരെ സർക്കാരോ അല്ലെങ്കിൽ ഇന്നത്തെ സമുഹമോ നമ്മൾ എന്തെയ്യണം അവരെ പഠിപ്പിച്ച് കൊടുക്കണം അപ്പം ആ പഠനത്തിലൂടെ അവർക്ക് എന്തെയ്യാം സ്വന്തമായിട്ട് തൊഴിലില്ലായ്മ എന്ന പ്രശ്നം അവർക്ക് സ്വന്തമായി എന്തെയ്യാം പരിഹരിക്കാൻ സാധിക്കും ഇന്ന് പല തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുണ്ട് ആ പ്രോഗ്രാമുകള് വഴി എന്തെയ്യാ നമുക്ക് നമുക്ക് ആ പ്രോഗ്രാമുകളിൽ പല സൈക്കാട്രിസ്റ്റ്കളും വന്ന് നമക്കെന്തെയ്യാം നമ്മള് സ്വന്തം നമക്കെന്തൊക്കെ നമക്കെന്തിനൊക്കെ കഴിവുകളുണ്ട് എന്ന് അവര് നമ്മളെന്തെയ്യും അവര് കണ്ടെത്തി തരും ആ കണ്ടെത്തിയ കഴിവുകള് നമ്മളെന്തെയ്യാ ഇംപ്രൂവ് ചെയ്യാ ഇംപ്രൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് എന്തെയ്യാ തൊഴില് കണ്ടെത്തുക ആദ്യം നമ്മള് പഠിച്ചത് മാത്രമല്ല തൊഴിലെന്നും മറ്റു പല സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് പല ജോലികളും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെന്തെയ്യണം ചിന്തിക്കണം ഇന്ന് ഹോട്ടൽ മേഖലകളും കുക്കിങ് ഇൻഡസ്ട്രിയൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബേഴ്സ് അങ്ങനെ ഒര് വരുമാനം കണ്ടെത്തുന്ന ഒരു നാടായി നമ്മള് മാറിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പം എങ്ങനെയാണോ നമുക്ക് എന്ത് ചെയ്യാം സ്വന്തമായി വരുമാനം കണ്ടെത്താം എന്ന് നമ്മളെന്തെയ്യണം ചിന്തിക്കണം അതുവഴി നമ്മുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം നമ്മളെന്തെയ്യണം നേരിടണം ഇതിന് ഒക്കെ വഴി തെളിയിക്കേണ്ടത് നമ്മളെന്തെയ്യണം ഗവൺമെൻറ് ഇതിനനുസരിച്ച് ഇപ്പ സംരംഭം തുടങ്ങാൻ അവർക്കവശ്യമായ വായ്പ്പകളും അവർക്ക് എന്തൊക്കെ നമ്മളെന്തെയ്യണം വാഗ്ദാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്നതൊക്കെ നമ്മള് ചെയ്ത് തരും എന്തെയ്യണം അവർക്ക് അങ്ങനെ ഒരു വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യും അതിലേക്ക് ഇറങ്ങി ചെല്ലും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നമുക്ക് സ്വയം ആത്മവിശ്വാസം നേടുന്നതിലൂടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും പുതുതായി നമ്മുടെ ആ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും